കൂടുതലായും നമ്മൾ ചെയ്യുന്ന ആരാധന എന്ന് പറയുമ്പോൾ വീട്ടില് നമ്മൾ രാവിലെ വിളക്ക് കൊളുത്തുക പ്രാർത്ഥിക്കുക വൈകുന്നേരം വിളക്ക് കൊളുത്തുക നാമം ജപിക്കുക ഒരു അരമുക്കാല് മണിക്കൂർ നാമം ജപിക്കുക എന്നിവയാണ് കൂടുതലും ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക കൂടുതൽ ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് അവിടത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുക പിന്നെ നമ്മുടെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് ഗണപതിഹോമം ഭഗവതിസേവ പുഷ്പാഞ്ജലി നടത്തുക ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക നാരങ്ങാമാല ചാർത്തുക കൃഷ്ണന് തുളസിമാല ശിവന് കൂവളത്തിൻ്റെ മാല എന്നിവയൊക്കെയാണ് നമ്മൾ കൂടുതലായി ചെയ്തുവരുന്ന ആചാരനം ആചാരങ്ങൾ നമ്മൾക്ക് ഇന്ന ദിവസം എന്നില്ല ഏത് ദിവസം വേണമെങ്കിലും ക്ഷേത്രത്തിൽ സന്ദർശിച്ച് ദീപാരാധനയിൽ പങ്കെടുക്കാം ഇന്ന വഴിപാടുകൾ നമ്മൾക്ക് ഏതാണോ അനുയോജ്യമായ വഴിപാടുകൾ എന്നു വച്ചുകഴിഞ്ഞാല് അത് ചെയ്യുക അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നിങ്ങനെയാണ് കൂടുതലായും വീടുകളില് വിളക്ക് കൊളുത്തി നാമം ജപിക്കുകയാണ് സ്ഥിരമായി ചെയ്യുന്ന ആരാധന എന്ന് പറയുന്നത്